ഞാൻ ലൈബ്രറി പോകാറുണ്ട് വീട്ടിലൊരു ചെറിയ ഒരു ലൈബ്രറി ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് വിവരിക്കാൻ പറഞ്ഞാൽ ഒരുപാട് പുസ്തകങ്ങൾ ഒന്നുമില്ലെങ്കിലും അതിലത്യാവശ്യം ഉള്ള പുസ്തകങ്ങൾ നമ്മൾ വാങ്ങിച്ചു വെക്കാറുണ്ട് നമുക്ക് ആവശ്യമായ നമ്മളുടെ വിദ്യാഭ്യാസത്തിനാവശ്യമായ ഒരുപാട് കുറച്ച് പുസ്തകങ്ങൾ നമ്മൾ വാങ്ങിച്ചു വെക്കാറുണ്ട് ഒ എൻ വി കുറുപ്പിൻ്റെ കവിതകളും പിന്നെ ഷേക്സ്പിയറിൻ്റെ ഡ്രാമയും അങ്ങനത്തെ കുറച്ച് കുറച്ച് ബുക്കു പുസ്തകങ്ങൾ നമ്മൾ വാങ്ങിച്ചു വെക്കാറുണ്ട് പിന്നെ അതിൽ പരമായിട്ടും നമ്മളുടെ സ്വപ്നം ഒരു ലൈബ്രറിയെന്നൊരു സ്വപ്നം സ്വപ്നം എങ്ങനെ വീട്ടിൽ കൊണ്ടു വരാമെന്ന് വെച്ചാൽ